അടുക്കളകളിലും അതേപോലെ തന്നെ ശുചിമുറികളിലും കണ്ടു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് എലിയും പാറ്റകളും ഇതിനെ തടയാൻ വേണ്ടി നമുക്ക് കുറച്ചു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ പരിസരവും ശുചിമുറിയും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം അതുപോലെത്തന്നെ അടുക്കളയിലെ പാത്രങ്ങൾ എപ്പോഴും രാത്രി കഴുകി വെക്കണം അതേപോലെ വേസ്റ്റ് പുറത്തിടാതെ ഇരിക്കണം അതുപോലെ ശുചിമുറി എപ്പോഴും ക്ലീനായി സൂക്ഷിക്കണം ഡിസിൻഫെക്റ്റ് ഉപയോഗിച്ച് എപ്പോഴും ശുചിമുറി വൃത്തിയാക്കണം അതുപോലെ കീടാണുക്കളെ തടയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തറയെല്ലാം വൃത്തിയാക്കണം അതുപോലെത്തന്നെ പാറ്റയെ നശിപ്പിക്കുന്ന അതിനെ ആകർഷിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കാം അതേപോലെ തന്നെ എലിക്കെണികൾ ഉപയോഗിച്ച് എലികളെ പിടിക്കുകയും അതിനെ നശിപ്പിക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ വീടും പരിശ്രമ പരിസരത്തുള്ള ചെടികളും ചെടികൾ എല്ലാം വൃത്തിയായി വെട്ടി സൂക്ഷിക്കണം അതുമൂലം ഒക്കെ നമുക്ക് ഇത് തടയാൻ ആയിട്ട് സാധിക്കും